എനിക്ക് അറി യാവുന്ന ചില്ലറ മൊത്ത വ്യാപാര വിപണികൾ ഏതൊക്കെയണെന്ന് വച്ചാൽ കാര്യമായിട്ട് നാടുകളിൽ കാണപ്പെടുന്ന മൊത്ത വ്യാപാര വിപണികളിലെ ഏറ്റവുംം പ്രധാനപ്പെട്ട ഒരു അംഗമാണ് മലഞ്ചരക്ക് വ്യാപാരങ്ങൾ മലഞ്ചരക്ക് വ്യാപാരങ്ങളിൽ പെടുന്നത് തേങ്ങ കശുമാവിൻ്റെ അണ്ടി അതുപോലെ തന്നെ അടക്ക പോലെയുള്ള വിപണി വസ്തുക്കളാണ് ഇവിടെ നമുക്ക് മൊത്തമായിട്ട് നമ്മുടെ വസ്തുക്കൾ ഈ തേങ്ങ പോലെയുള്ള വസ്തുക്കൾ നമുക്ക് അവിടെ വൽപ്പന ചെയ്യാനും കഴിയും അതുപോലെ തന്നെ അവിരിൽ നിന്ന് നമുക്ക് മൊത്തമായി വാങ്ങാനും കഴിയും അതുപോലെ തന്നെ മറ്റ് പച്ചക്കറികളും അതുപോലെ മറ്റു കളിപ്പാട്ടങ്ങൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് ഇനി ഈ അടുത്ത കാലത്തായി വന്ന പലചരക്കുകളിലുള്ള വിലമാറ്റങ്ങളെ കുറിച്ചു നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ രസകരമാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് കാണുന്ന ഇത് പച്ചക്കറികളിലുള്ള വിലമാറ്റങ്ങൾ ചില സമയത്ത് പച്ചക്കറികൾക്ക് കൊടും വില ആയിരിക്കും എന്നാൽ ചില സമയത്ത് പച്ചക്കറികൾക്ക് തീരെ വില ഉണ്ടകില്ല ഉദാഹരണത്തിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് നമ്മൾക്ക് എടുക്കാൻ കഴിയുന്നത് ഉള്ളിയാണ് ഉള്ളി ചില സമയത്ത് ഉള്ളിക്ക് നല്ല വിലയായിരിക്കും അതുപോലെ തന്നെ ചില സമയത്ത് നോക്കുമ്പോൾ തീരെ വില ഉണ്ടാവുകയില്ല പ്രധാനമായും ഈ ഉള്ളി പോലെയുള്ള വസ്തുക്കൾക്ക് വില കൂടുവാനുള്ള കാരണം എന്തെന്നാൽ ഇത് കൃഷി ചെയ്യുന്ന നാട്ടിലെ ഉദാഹരണത്തിന് കേരളത്തിലെ അതായത് നമ്മൾ കോഴിക്കോട്ടുകാരെയൊക്കെ വച്ചു നോക്കുകയാണെങ്കിൽ ഈ ഇങ്ങോട്ട് ഉള്ളി കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് തമിഴ്നാട്ടിൽ ഒരു വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങൾ കാരണം എന്തെങ്കിലും കൃഷിയിൽ നാശം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി ഉള്ളിയുടെ വില കൂടുകയും ചെയ്യും അതുപോലെ പലതരത്തിലുള്ള ഇൻഫ്ലേഷൻ അതുപോലെയുള്ള ഭാഗങ്ങളും നാം ഈ വിലക്കയറ്റത്തിൻ്റെ വിഷയങ്ങളിലും വില ഇറക്കത്തിൻ്റെ വിഷയത്തിലും മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പിങ്ങുകളെ കുറിച്ചു എൻ്റെ അഭിപ്രായം എന്തെന്ന് വച്ചാൽ ഓൺലൈൻ ഷോപ്പിങ്ങുകൾ ഇന്നത്തെ കാലത്ത് നമുക്ക് കഴിയുന്ന ഏറ്റവും വലിയ ഒരു അഡ്വഞ്ചർജ ആയിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് ഓൺലൈൻ ഷോപ്പിങ്ങിലൂടെ മികച്ച ലാഭങ്ങൾ നമുക്ക് കൊയ്യുവാൻ സാധിക്കും എന്നാൽ ഇതേ സമയം ഈ ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ മറ്റൊരു പരിമിതി എന്തെന്നാൽ ഇതിൽ പല ഫ്രോഡ് പരിപാടികൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് അതിൽ നിന്ന് അതിനാൽ കൊണ്ട് തന്നെ അത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഡിസ്അഡ്വൻ്റേജ് ആയി നമുക്ക് മനസ്സിലാക്കുന്നത് തട്ടിപ്പുക്കാർക്ക് വളരെ എളുപ്പമായി ഇതിനെ ഉപയോഗിക്കാമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒ രു സാധനം തിരഞ്ഞെടുക്കുമ്പോഴും അത് മേടിക്കുന്ന സമയത്തും നാം ഒരിക്കലും ഒരു തട്ടിപ്പിന് വിധേയനാവാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതാണ് ഓൺലൈൻ ഷോപ്പിങ്ങിനെക്കുറിച്ചു പറയുമ്പോൾ നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നാൽ ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ മറ്റു മേഖലകൾ നമ്മൾ എടുത്തു നോക്കുന്നുണ്ടെങ്കിൽ വളരെ വിശാലമാണ് ആമസോൺ പോലെ ഫ്ലിപ്പ്കാർട്ട് പോലെ അതും തുടങ്ങി അതു കഴിഞ്ഞ് ചില്ലറ ചില്ലറ കമ്പനികൾ ചെറിയ നാട്ടിലെ റൂറൽ കമ്പനികൾ വരെ ഇത് നടത്തുന്ന ഓൺലൈൻ ഷോപ്പിങ്ങിൽ സജീവമാവുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നത്